ഞാൻ വരച്ചിതിനു ഒന്നും തന്നെ അധികം ആഴവും അർത്ഥവും ഇല്ലയെന്നാണ് എൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്നെ അറിയുന്നവരും പറയുന്നത് പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടില്ല ചിത്രമൊക്കെ ചെറുതായി പണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയല്ലാണ്ട് അതിനോട് അത് അങ്ങനെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷ രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ആശയം കൊടുത്തിട്ട് വരയ്ക്കുകയും ആ ഒരു കലാപരമായൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോളതിനെന്തെങ്കിലും ഒരു ആശയം ഉള്ളതായി തോന്നിയ വിധത്തിൽ ഉള്ളൊരു ചിത്രം ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു രണ്ടു കൊല്ലം മുൻപ് ഞാനൊരു ചിത്രം വെറുതെ വരച്ചു അപ്പോൾ ഞാനൊരു ബാക്ടിരിയേൻ്റെ ചിത്രം എന്തോ ആണ് പെട്ടെന്ന് കണ്ടിട്ട് വരച്ചത് അത് ഒരു രണ്ടൂസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നോക്കിപ്പോൾ എനിക്ക് ഒരു ഭൂമി എന്ന് വെച്ചാൽ നമ്മൾ ഭുമിയിൽ മലയും തെങ്ങും ഇതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ശ് വട്ടത്തിൽ ഉള്ള ഷേപ്പ് മാറിയ ഒരു ഭൂമീൻ്റെ ഒരു രീതിയിൽ എനിക്ക് അത് പെട്ടെന്ന് തോന്നി അത് എനിക്കൊരു ആശ്ചര്യമുള്ളൊരു കാര്യമായിരുന്നു